ഇടുക്കിയില്നിന്ന് ഒരു സ്ഥലം വേണായിരുന്നേ വീടോടുകൂടി

താമസത്തിനു വേണ്ടിയിട്ടായിരുന്നേ ആ ആം എല്ലാം ആ എല്ലാം വേണം ആം ഒരു മുപ്പത് സെൻറ്റ് ആം

റോഡ് സൗകര്യം ഉണ്ടായി ആ റോഡ് സൈഡ് ആം മുറ്റത്തൊരു കിണര് വേണമായിരുന്നേ

വെള്ളത്തിനു സൗകര്യം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റേ വീട് ആം ആം ആ ഒരു എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ചു കോടി

ഏത് എൻ്റെ കയ്യിൽ എഴുപത്തിയഞ്ച് ലക്ഷം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടായിരുന്നു ആ ആം പറ്റും

അം മതി ഓക്കേ